പാട്ട് പഠിക്കുന്നത് പാട്ട് നന്നായി പഠിക്കുന്ന ആളുടെ അടുത്ത് പോയി പാട്ട് പാടി പഠിക്കുക പിന്നെ വെള്ളത്തിലിരുന്നാണ് പാട്ട് പാടുന്നത് കഴുത്തോളം മുങ്ങി പാട്ട് പാടും എന്നു പറയും അതും കേട്ടിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് അങ്ങനെ ആൾക്കാർ പാടുന്നത് കുളത്തിൽ വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുളമുണ്ട് ആ കുളത്തിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് ഇങ്ങനെ കഴുത്തോളം മുങ്ങിയിട്ട് പാട്ടു പാടും സരിഗമ എല്ലാം പാടി അങ്ങനെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നല്ല അങ്ങനെയൊക്കെയാണ് പാട്ട് പഠിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്ന എന്നത് പറഞ്ഞാൽ നമ്മളങ്ങനെ അത്യാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടായി നമ്മൾ പാട്ടിനൊന്നും പോയിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെ അറിയില്ല പിന്നെ പാട്ട് പഠിക്കുന്നവർക്കല്ലേ അതിന്റെ അതറിയൂ നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടില്ല നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ചെറു തരത്തിൽ പാടുകയെന്നല്ലാണ്ട് നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെ കഷ്ടപ്പാട് ഉള്ളത് ഒന്നുമല്ല പാട്ട് എന്നു തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയി പാട്ട് പഠിക്കയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് അതാണ് പാട്ടിന്റെ ഇത്